നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ധാന്യങ്ങളും വെള്ളവും വയ്ക്കുക അപ്പം ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കാൻ വേണ്ടീട്ട് പ്രാവുകളും മറ്റ് ചെ മറ്റ് പക്ഷികളും എത്തുകയും അതിലൂടെ നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു മാത്രമല്ല വീട്ടിൽ ധാരാളം പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ അവയിൽ തേൻ കുടി കുടിക്കാൻ വരുന്ന സൂചി മുഖിക്കുരുവികളും അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുരുവികൾ വരുകയും നമ്മുടെ വീടും പൂന്തോട്ടവും പല തരം പക്ഷികളെ കൊണ്ട് അവയുടെ കളകള ശബ്ദങ്ങൾ കൊണ്ടും വളരെ ആസ്വാദനമാക്കു മാകാൻ ആസ്വാദനമാക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പം ഇതെക്കെ നമുക്ക് വളരെയധികം നല്ല രസകരമായ ഒരു വസ്തുക്കൾ വസ്തുത തന്നെയാണ് അപ്പം ദിവസവും നമ്മൾ ധാന്യങ്ങളോ എന്തെങ്കിലും ഇടുന്നത് വഴി നിരവധി പ്രാവുകൾ അല്ലെങ്കിൽ തത്തകൾ ഇവയൊക്കെ വരികയും ചെയ്യുന്നു അതവർക്ക് വിശപ്പടക്കാനുള്ള ഒരു മാർഗ്ഗവും നമുക്കൊരു സമയം പോകാനുള്ള വേറൊരു മാർഗ്ഗവും കൂടിയാണ്